സമീപത്തായിട്ട് കനകക്കുന്നുണ്ട് ശംഖുമുഖം ഉണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രങ്ങളൊണ്ട് ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതല് വിനോദസഞ്ചാരികള് എത്തിച്ചേരുന്നത് ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷ സമയങ്ങളില് കനകകുന്ന് ല് ഫെസ്റ്റും പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട് ആ സമയത്ത് വിനോദസഞ്ചാരികളുടെ ഒരു വലിയ കൂട്ടം തന്നെ അവിടെ വന്നെത്താറുണ്ട് അതുപോലെ വിനായക ചതുര്ത്ഥി പോലുള്ള ഉത്സവസമയത്തൊക്കെ ശംഖുമുഖം പോലുള്ള കടല്തീരത്തൊക്കെ ഒരുപാട് സഞ്ചാരികള് എത്തുന്നുണ്ട് പിന്നെ പത്മനാഭ ക്ഷേത്രത്തില് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല അവിടെ എപ്പോഴും വിനോദ സഞ്ചാരികൾ എത്താറുണ്ട് ദര്ശനം നടത്താറുണ്ട്